നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് നാണയത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാണയ ശേഖരണത്തിനും സ്റ്റാമ്പ് ശേഖരണത്തിനും ധാരാളം പ്രധാന്യം ഉണ്ട് കാരണം ചരിത്രപഠനത്തിലും ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്നതും സ്റ്റാമ്പും നാണയവും അതുപോലെ നമ്മുടെ മുൻകാല കാലഘട്ടങ്ങളിലുള്ളവർ അതായത് നമ്മുടെ പൂർവ്വികർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ ശേഖരിക്കുന്നതും സംരക്ഷിക്കുന്നതും നമ്മൾ അവർക്ക് നൽകുന്ന ബഹുമാനമാണ് അതുപോലെ ഇങ്ങനെ നമ്മൾ ശേഖരിക്കുന്നതിലൂടെ ധാരാളം അറിവുകൾ നമുക്ക് കിട്ടും കാരണം പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായ വ്യക്തി വ്യക്തികളെക്കുറിച്ച് പറയുകയാണ് ജീവചരിത്രം അതുപോലെ നമ്മുടെ മലയാള ഭാഷയും ഉത്ഭവങ്ങളെക്കുറിച്ചും മറ്റും പല വിലപ്പെട്ട വിവരങ്ങളും നമ്മൾ നമ്മൾക്ക് ഇതിലൂടെ അറിയാനും ധാരാളം പഠിക്കാനും കഴിയുന്നു അതു കൂടാതെതന്നെ നമുക്കിതു പോലെ നമ്മൾ ശേഖരിക്കുന്ന സ്റ്റാമ്പുകളും നാണയങ്ങളും വരും തലമുറകൾക്ക് കൂടി ഉപകരി ഉപകാരപ്പെടും അവർ ചരിത്ര പഠനത്തിനും മറ്റും ഇങ്ങനെയുള്ള ശേഖരണങ്ങൾ ധാരാളം അറിവുകൾ നൽകുന്നു അറിവുകൾ നൽകുന്ന കാലഘട്ടങ്ങളാണ് മനസ്സിലാക്കുന്നതിനും അതുപോലെ അതു കൂടാതെതന്നെ വ്യാപാര കാര്യങ്ങൾ അതുപോലെ തന്നെ നാണയ സമ്പ്രദായങ്ങൾ ഭരണ പൂർവ്വീകർ അന്ന് നിലവിൽ നിന്നിരുന്ന മറ്റു സാമൂഹ്യ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നാണയങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടൊക്കെത്തന്നെ പറയാനുണ്ട് അന്ന് പഴയ കാലഘട്ടങ്ങളിലൊക്കെയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഈ നാണയ ശേഖരണമൊക്കെ ഇന്നും ഉള്ള ഇന്നുളള കൊച്ചുക്കുട്ടികൾ തന്നെ അന്നത്തെ പഴയ നാണയങ്ങളും അവർക്ക് ശേഖരിക്കുന്നുണ്ട് സ്റ്റാമ്പ് ശേഖരണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികളൊക്കെ ചെയ്ത് വരുന്നുണ്ട് അത് കൂടാതെത്തന്നെ അമ്മയ്ക്ക് പറയാനൊക്കെ ഉണ്ട് മുൻകാലഘട്ടങ്ങളിലുള്ള ആൾക്കാരുടെ ആ ഒരു രീതി തന്നെ ഇന്നത്തെ കുട്ടികളിലൂടെയെന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താൽ അവർ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കുറച്ചൊക്കെ അവർ അങ്ങനെയൊക്കെ ഒക്കെ നോക്കി കണ്ടു പോകുന്നുണ്ട് എന്നാലും ഇന്നത്തെ കുട്ടികൾ ഒരുപാട് പേർ തന്നെയാണെങ്കിലും അവർ സ്റ്റാമ്പ് ശേഖരണം നാണയ ശേഖരണം അവർ നടത്തുന്നുണ്ട്